ഞാൻ ഈ അടുത്തായിട്ടൊരു ഹോം തിയേറ്റർ വാങ്ങിച്ചു ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത് ആമസോണിൽ നിന്ന് മേടിച്ചത് ആറായിരം രൂപയായി ഇമ്പെക്സിൻ്റെ ഒരു ഫൈവ് പോയിന്റ് വൺ നൂറ് വാട്സിൻ്റെ ഹോം തിയേറ്റർ സൗണ്ട് ഭയങ്കര മോശം എരയ്ക്കണ് ഇങ്ങനെ പാട്ടക്കെ കേൾക്കുമ്പോൾ നമുക്ക് സൗണ്ട് കൂട്ടി വയ്ക്കാൻ പറ്റില്ല എരയ്ക്കും അത്രയ്ക്കും മോശം ഹോം തിയേറ്റർ അതുപോലെ ഇതിൻ്റെ കേബിളൊക്കെ കേബിളൊന്നും നീളമില്ല അതുപോലെ കേബിളിൻ്റെ അറ്റത്ത് പിന്നൊക്കെ തുരുമ്പെടുക്കാറായ പോലത്തെ ഒരു കുറച്ച് പഴയ സാധനമാണത് ഭയങ്കര മോശം സാധനം ആയിപ്പോയി സൗണ്ട് തീരെ കമ്മി എരക്കുക ബാസ്സൊന്നും കൂട്ടി വയ്ക്കാനേ പറ്റില്ല എരയ്ക്കും അങ്ങോട്ട് അതുപോലെ ഇതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റണില്ല ബ്ലൂടൂത്തൊക്കെ ഉള്ളതാണിത് പക്ഷെ ഇതിൽ കണക്റ്റാവണില്ല ഫോൺ ബ്ലൂടൂത്ത് കണക്റ്റാവണില്ല ബ്ലൂടൂത്ത് മോഡിട്ടുയെന്നു പറഞ്ഞാൽ കണക്റ്റാവണില്ല അതുപോലെ റിമോട്ട് റിമോട്ടും ഇതിൻ്റെ വർക്ക് ചെയ്യണില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊട്ടിക്കൊടുക്കണം എങ്കിലെ റിമോട്ട് വർക്ക് ചെയ്യണുള്ളൂ അങ്ങനെ ഒരു മോശം സാധനമായിപ്പോയി ഈ ഒരു ആറായിരം രൂപക്ക് നമ്മുടെ അടുത്തുള്ളൊരു കടയിൽ പോയി മേടിച്ചാൽ നല്ല സാധനം കിട്ടിയേനെ നോക്കി മേടിക്കാമായിരുന്നു ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി